ഇപ്പോൾ നമ്മളൊരു പുതിയ ഒരു ആപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മളാദ്യം പ്രീമിയം അതിനകത്ത് നമ്മുടെ എം ബി ഡേറ്റാ എം ബി യൂസ് ചെയ്യാനപ്പോൾ നമ്മൾ പല ഇതും നമ്മൾ നോക്കാറുണ്ട് അപ്പം ആപ്പ് നമ്മൾ നമ്മളുടെ ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്നുവേണം നമ്മളാദ്യം നോക്കാനായിട്ട് ഇപ്പം ആപ്പിൻ്റെ ഡേറ്റ നമ്മളിപ്പം നമ്മുടെ എം ബി അനുസരിച്ച് ഡേറ്റ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഡേറ്റ എം ബി നമ്മൾ നോക്കും ഇത്ര എം ബി കൂടുതലാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണോ എന്ന് നോക്കുക പിന്നീട് ഉപയോഗിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ നേരിടുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും നമുക്ക് ദോഷമുള്ള നമുക്ക് അറിയാവുന്ന ഒരു ആപ്പു മാത്രം നമ്മളുടെ ഇപ്പം പല രീതിയിലുള്ള തെറ്റായ ആപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് അപ്പം അതൊന്നും അറിയാത്ത സൈറ്റിൽ കയറിയൊന്നും ആപ്ലിക്കേഷനൊന്നും നോക്കാതിരിക്കുക പിന്നീടാണെങ്കിൽ ആപ്ലിക്കേഷനിൽ പലരീതിയിലുള്ള തെറ്റായ സംഭവങ്ങളൊന്നും നമ്മൾക്ക് നേരിടാ പക്ഷേ അതിലൊന്നും നമ്മൾ എത്തിപ്പെടാതെ നമ്മൾ നോക്കുക